ഇപ്പോൾ തന്നെ ഒട്ടനവധി പഠനങ്ങൾ പഠനങ്ങൾ കൊണ്ട് നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകളും മറ്റ് കാര്യങ്ങളൊക്കെ ഈ അന്യഗ്രഹ ജീവികളെ പറ്റിയിപ്പം അമേരിക്ക തന്നെ പുറത്ത് വിടുന്നുണ്ട് അവർ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുകളെ ആൾക്കാരെ തിരിച്ച് ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടവർ അതിനുള്ളിൽ ഒരു സെൻറ്ററുണ്ടാക്കി അപ്പം അതിനെപ്പറ്റി തന്നെ പഠിക്കുകയാണ് ഈ അന്യഗ്രഹ ജീവികളെപ്പറ്റിയും മറ്റ് സ്പേയ്സ് സ്പേയ്സിലുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാം അവർ പഠിക്കുകയാണ് അപ്പം ഈ അന്യഗ്രഹജീവി ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി വിശ്വസിക്കാതിരിക്കാം പക്ഷേ എന്നാൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇവർ ഇപ്പം ഈ ഈയിടെയായിട്ട് വെളിപ്പെടുത്തുന്ന എല്ലാ തെളിവുകളും അതിന് യോജ്യമാണ് അത് അവർ അവർ അതിൻ്റെ ഓരോ പാർട്സുകളും അതിൻ്റെ ഫോട്ടോകളും അവർക്ക് അവർ ഇവിടെ വന്നിട്ടുണ്ട് അത് അന്യഗ്രഹജീവികൾ ഇവിടെ വന്നിട്ടുണ്ടെന്നും അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള രീതിയിൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ രീതിയും ട്രാവലിംഗ് ആയിട്ടുള്ള രീതിയും അതിൻ്റെ ഷേപ്പും അപ്പം അതിൻ്റെ ഓരോ തെളിവുകളിങ്ങനെ അവർ ഇങ്ങനെ പുറത്ത് വിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതു വരെ അവർ മൊത്തം വിട്ടിട്ടുള്ള വളരെ ചുരുക്കം തെളിവുകളു കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ കാണുമ്പം നമ്മൾ കാണുമ്പം അന്ത ഇങ്ങനെ സ്തംഭിച്ച് പോകും കാരണം നമ്മൾ വിശ്വസിക്കാത്ത ഒരു കാര്യത്തിനെപ്പറ്റി നമ്മളിങ്ങനെ കേൾക്കുമ്പോഴത്തേക്കിന് നമ്മൾ ഉറപ്പായിട്ടും നമ്മളതിനെപ്പറ്റി സ്തംഭിച്ച് പോകും ഇപ്പോൾ രാത്രികാലങ്ങളിൽ തന്നെ ചില സമയത്തിങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പം തന്നെ എന്തോ ഒരു സാധനം ഇങ്ങനെ മിന്നായം പോലെ ഇങ്ങനെ ഒരു പോകുന്നത് കാണുമ്പം തന്നെ നമ്മളിങ്ങനെ ചിന്തിക്കും അതെന്താണ് നക്ഷത്രമാണോ എന്ന് നമുക്ക് ചിന്തിച്ച് പോകും പക്ഷേ എന്നാൽ എന്നാൽ ഇവരുടെ പഠനങ്ങളൊക്കെ പറയുന്നത് അത് നക്ഷത്രങ്ങളല്ല ഈ അന്യഗ്രഹ ജീവികളൊക്കെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഈ ഫോഴ്സ് കൊണ്ട് ഇപ്പം ഈ പ്രകാശം വരുന്നതാണെന്നൊക്കെയാണ് അവർ പറയുന്നത് അന്നേരം ഇവർ ഈ ഇതിൻ്റെ ഓരോ പഠനങ്ങൾ കൊണ്ടിവർ പഠനങ്ങളും പുസ്തകങ്ങളും മാധ്യമങ്ങളിലും എല്ലാം ഇപ്പം ഇതാണ് നിറഞ്ഞിരിക്കുന്നത് കാരണം എല്ലാവരും ഇപ്പം വിശ്വസിക്കാൻ വേണ്ടി ഇങ്ങനെ വിശ്വസിച്ച് വിശ്വസിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞു കാരണം അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്നവർ വിശ്വസിക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു കാരണം ഈ തെളിവുകളും മറ്റും ഈ മാധ്യ മാധ്യമങ്ങളിൽ കാണുമ്പത്തേന് അവർ നമ്മളെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കും നമ്മൾ ഈ ചിന്തിച്ച് വരുമ്പോൾ അത് ഉണ്ടായിരിക്കുമോ എന്നാൽ എന്നാൽ ഉണ്ട് കാരണം ഇത്രയും തെളിവുകൾ നമ്മളിത് കണ്ടിട്ടില്ലെങ്കിലും പക്ഷെ ഇവർ ഇവർ ഇത് ഇവർ ഇവർ ഇങ്ങനെ പുറത്തോട്ട് വിടുംബത്തേന് ഇത് കാണുന്ന എല്ലാവരും നമ്മളിങ്ങനെ ചിന്തിച്ച് പോകും ഉറപ്പ് ഇത് ഉണ്ടല്ലേ അത് ഇല്ലായിരിക്കുമോ അത് ഇല്ലായിരിക്കുമോയെന്ന് നമ്മൾ ചിന്തിക്കാനുള്ള ഇതവിടെ വളരെ കുറവാണ് കാരണം നമ്മളീ ചിന്തിച്ച് പോകും അതവിടെ ഉണ്ടല്ലേ അപ്പം അപ്പോൾ ഇങ്ങനെ ഒരു ജീവി ഉണ്ടല്ലേ കുറച്ച് കൂടി കഴിയുമ്പോൾ അവർ വന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ അപ്പോൾ ബാക്കി കാര്യങ്ങൾ കൂടി ചിന്തിക്കാൻ തുടങ്ങി അപ്പം ഇതിനുള്ള തെളിവുകളൊക്കെ പ്രൊ ഇങ്ങനെ ഇടുമ്പത്തേനും അവരിങ്ങനെ പുറത്ത് വിടുമ്പത്തേനും നമ്മൾ നാട്ടിൽ നമ്മൾ മാത്രമല്ല ഇത് കാണുന്ന എല്ലാവരും ഇതിനെ ഇത് വായിക്കുന്നതല്ല ഇത് കേൾക്കുന്ന എല്ലാവരും ഇതിനെപ്പറ്റി ഒന്നാലോചിച്ചു പോകും അയ്യോ അപ്പം ഇതുണ്ട് അപ്പം ഇത് ബാക്കി അപ്പം ഇത് ഭാവിയിൽ അപ്പം ഇത് എന്തായാലും ഈ ഇവർ എല്ലാവരുംഇവർ ഇവർ വരും നമ്മൾ നേരിട്ട് അപ്പം അവർ ചിന്തിച്ച് പോകും അപ്പം ക്യൂരിയസ്സുമാണ് എന്നാൽ അതേ സമയം കുറച്ച് പേടിയും കാണും കാരണം ഇവർ വന്നാൽ ഇവർ നമ്മളെ അറ്റാക്ക് ചെയ്യുമോ അതോ എന്താണ് ചെയ്യാന്ന് ഒരു ഐഡിയ ഇല്ലാത്തതു കൊണ്ട് തന്നെ ഇവർ ഇവരതുകൊണ്ട് പകുതി പകുതിയെന്നല്ല അവർ ക്യൂരിയസ്സാണ് അപ്പം ഇവർ വരും വരുന്നതിനുള്ള ആകാംക്ഷയിലുമാണ് പക്ഷേ എന്നാൽ അതിനുള്ള പേടിയിലുണ്ട് ഇവർ പേടിയിൽത്തന്നെ കഴിയുന്നത് കൊണ്ട് രണ്ടും ഉള്ളതുകൊണ്ടവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നപ്പോഴും നമ്മൾ നമ്മളെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പം ഈ ഇതിന് വേണ്ടി പഠനങ്ങൾ നടത്താൻ വേണ്ടി തന്നെ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഏരിയകളിലൊക്കെ തന്നെ ഇവരുടെ ഈ പഠനകേന്ദ്രങ്ങളൊക്കെ അവർ നിർമ്മിച്ചിട്ടുണ്ട് കാരണം ഇതിനെ ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങളവർ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടികൂടുതൽ ആൾക്കാരെ അവർ നിയമിച്ച് കൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി എല്ലാവർക്കും എല്ലാവരുടെയടുത്തോട്ടും എത്തിക്കാൻ വേണ്ടി അവർ ഇതിനെപ്പറ്റി അറിയാവുന്ന അതായത് ഈ അന്യഗ്രഹ ജീവികളിപ്പറ്റി അറിയാവുന്ന ആൾക്കാരെ അറിയാവുന്ന ആൾക്കാരെ ഇതിനെപ്പറ്റി ആകാംഷയുള്ളവർ ഇതിനെപ്പറ്റിയെന്നാൽ പഠിച്ചെടുക്കാനുള്ള ആൾക്കാരെയൊക്കെ ഇവർ ഗ്രൂപ്പായിട്ട് തിരിച്ച് ഒട്ടനവധി സ്ഥലങ്ങളിലേക്കൊക്കെ അയച്ച് അവരിപ്പം അവിടെ പഠനങ്ങൾ ഇപ്പഴും നടത്തികൊണ്ടിരിക്കുകയാണ് അപ്പ ഓരോ ദിവസം കഴിയും തോറും ഇതിൻ്റെ അപ്പ്ഡേഷനും അതിൻ്റെ വരും കാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി ഇങ്ങനെ വരുന്നത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ വളരെ ആകാംക്ഷയിലാണ് കാരണം അടുത്തത് ഇവർ എന്തായിരിക്കും ഇവർ പുറത്ത് വിടാൻ പോകുന്നത് ഇന്നാള് തന്നെ അവർ പുറത്ത് വിട്ടു ഇതിൻ്റെ ഒരു ഷേപ്പ് ഇവർക്ക് പണ്ട് കിട്ടിയ പണ്ട് പക്ഷേ അതാർക്കും അറിയില്ല ഇവർക്ക് നേരത്തെ കിട്ടിയ ഒരു അന്യഗ്രഹ ജീവിയുടെ ഒരു സ്ക്കള്ള് സ്ക്കള്ള് ആ സ്ക്കള്ളും പിന്നെ ഒരു ഒരു ഫോട്ടോയും അതിൻ്റെ കുറച്ച് പാർട്സും ഇവർക്ക് കിട്ടിയതു കൊണ്ട് ഇവർ ഇവർ അത് ഈ ഇയിടെയാണവർ പുറത്തോട്ട് വിട്ടത് അവർ അവർ ഈ ഇടയാണ് ഇതു ഇവർ ഇവർ എന്താണെന്ന് ഇവർ സ്റ്റഡി ചെയ്തിട്ട് അവർക്ക് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ തെളിവില്ലാത്തതു കൊണ്ട് തന്നെ അത് വിശ്വസിക്കത്തില്ല അപ്പം അത്കൊണ്ട് തന്നെ അവരതിനെപ്പറ്റി പഠിച്ച് അതിനെ അതിനു വിശ്വസിനീയമായ തെളിവുകളുണ്ടാക്കി അവർ പുറത്തേക്കയച്ചു അന്നേരത്തേന് അത് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി ഒരു വഴി കാരണം അത് വിശ്വസ് വിശ്വസിക്കേണ്ടി അത് സത്യമാണ് അതുകൊണ്ട് തന്നെ അത് നമ്മളത് വിശ്വസിക്കുകയും ചെയ്യും കരണം ഇതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഫോട്ടോയും മറ്റ് ഇതുമൊക്കെ മാധ്യമങ്ങളിലും ഓൺലൈൻ പ്ലാറ്റഫോമുകളിലൊക്കെ ഇങ്ങനെ വ്യാപുലമായത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും വിശ്വസിച്ചു പോകും അതുകൊണ്ട് ആൾക്കാർ ആൾക്കാരെല്ലാം കൂടുതലതിനെപ്പറ്റി ശ്രമിക്കുന്നുണ്ട് പഠിക്കാൻ പഠിക്കാനും ഇതിനെപ്പറ്റി അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലുമാണ് കാരണം അടുത്തത് ഇനി എന്താണ് ഇവർ വിടുന്നതെന്ന് ആകാംക്ഷയിൽ നിൽക്കുകയാണ് കൂടുതലാൾക്കാരെ അവർ അവർ ഇപ്പോൾ അമേരിക്ക തന്നെയാണല്ലോ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി അവർ ആൾക്കാരെ കൂടുതൽ ആൾക്കാരെ തേടി കണ്ടെത്തി ഇതിനെ ഇത് പഠിക്കാൻ വേണ്ടി ഇതിനെപ്പറ്റി അറിയാനും ഇതിൻ്റെ മറ്റ് നീക്കങ്ങളും ഇത് ഇതിനി വരുന്നുണ്ടോ അത് സഞ്ചാരങ്ങൾ അറിയാനൊക്കെ ആയിട്ടുതന്നെ ആൾക്കാരെ ഒട്ടനവധി ആൾക്കാരെ നിയമിക്കുന്നുണ്ട് അപ്പം ആ ഇനി വരും ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ തന്നെ അവർ അവർ കൂടുതൽ തെളിവുകളും കാര്യങ്ങളും ഈ പുറ പുറത്തേക്കയക്കും എന്ന് പറഞ്ഞാൽ നമ്മളെന്തായാലും നമ്മൾ വിശ്വസിക്കും കാരണം അത് സത്യമായിട്ടുള്ള കാര്യമായത് കൊണ്ട് തന്നെ നമ്മളെന്തായാലും അത് വിശ്വസിക്കും സത്യമായിട്ടുള്ള കാര്യമായത് കൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ യാതൊരു വിധമായ ഇതുമില്ല അപ്പം എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കും ഇപ്പോൾ തന്നെ എല്ലാവരും അതിനെപ്പറ്റി പഠിച്ച് വിശ്വസിച്ച് വരുന്നത് കൊണ്ട് തന്നെ എല്ലവർക്കും അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഒരു ഒരു പത്രം വായിക്കുന്ന ആളോ അല്ലേ ഒരു ടി വി കാണുന്ന ആളോ ഇതിനെപ്പറ്റി എന്തായാലും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും കാരണം അത് അതിലൂടെ എല്ലാം ഇപ്പോൾ തന്നെ ഇത് വേ വേൾഡ് വൈടായിട്ട് തന്നെ എല്ലാവർക്കും എത്തിച്ചേർന്നിട്ടുണ്ട് കാരണം ഇതിനെപ്പറ്റിയുള്ള തെളിവുകളും കാര്യങ്ങളുമൊക്കെ അപ്പം അവരെന്തായിട്ടും പഠിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി എല്ലാവരും ഇപ്പം വിശ്വസിച്ചു കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇത് ഇനി വരും കാലങ്ങളിൽ തന്നെ വരും പഠനങ്ങളിനി കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളും വിശ്വസിക്കുക തന്നെ ചെയ്യും കാരണം എല്ലാവരും ഇപ്പം വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ശരിക്കും ഉണ്ടെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്